സ്കൂൾ കാലഘട്ടത്തില് നമ്മള് നാണയങ്ങളും സ്റ്റാമ്പുകളുമൊക്കെ കാണുമ്പോള് ഒരു കൗതുകമുണ്ടായിരുന്നു അതിൽ നിന്നാണ് അതന്നൊക്കെ ശേഖരിച്ചുവച്ച് സ്റ്റാമ്പുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളിലുണ്ടായതും അതിൽനിന്ന് അവിടുന്ന് എല്ലായിടത്തിന്നും കിട്ടുന്ന സ്റ്റാമ്പുകളൊക്കെയും അതുപോലെതന്നെ നാണയങ്ങളൊക്കെ ശേഖരിച്ചുവയ്ക്കുകയും അതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് കൂട്ടിവച്ച് അതെങ്ങനെ ഒട്ടിച്ചു നല്ല രീതിയിൽ അത് കൊണ്ടു നടക്കുകയും ചെയ്യുമായിരുന്നു അതിനുവേണ്ടി അത് അതിനുവേണ്ടി നമ്മുടെ ഫ്രണ്ട്സ് പേരൻസ് എല്ലാം നമ്മളെ സഹായിച്ചിരുന്നു നമ്മളൾക്ക് ഈ കൗതുകം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടുതന്നെ നമ്മളുടെ ഫ്രണ്ട്സും നമ്മുടെ പേരൻസും എല്ലാം നമ്മളെ സഹായിച്ചിരുന്നു നമ്മുടെ ഫ്രണ്ട്സിനും ഇതൊക്കെത്തന്നെ ശേഖര നാണയ ശേഖരണം ഈ സ്റ്റാമ്പ് ശേഖരണം ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിങ്ങനെ സ്റ്റാമ്പ് ശേഖരിക്കുന്നതുകണ്ടു കൗതുകം തോന്നിയാണു ഞാനും ഇത് ശേഖരിച്ച് ഇങ്ങനെ പേപ്പറിലൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ സൂക്ഷിച്ചുവയ്ക്കുവാൻ തുടങ്ങിയത് എൻ്റെ ഞാനിങ്ങനെ ശേഖരിക്കുന്നത് കണ്ട് എൻ്റെ പേരന്റ്സാകട്ടെ എൻ്റെ കൊളീഗ്സാകട്ടെ എല്ലാവരും എവിടെനിന്നെങ്കിലും ഈ സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതു നമ്മളെക്കൊണ്ട് എൽപിക്കുകയും നമ്മളുടെ ഈ ഈ ചെയ്യുന്നതിന്

അങ്ങനെ നല്ല രീതിയിൽ തന്നെ പാരന്റ്സ് അതിനെ പൂർണ്ണമായിട്ട് നമ്മള് സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ നല്ല രീതിയിൽത്തന്നെ നാണയങ്ങൾ ശേഖരിക്കുന്നതിനും സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നതിനും നമ്മള്ക്ക് സഹായകമായിരുന്നു പിന്നെ എന്നാ ടൈമിലങ്ങനെ ഒരുപാട് നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും സ്റ്റാമ്പുകളുടെ സ്റ്റാമ്പുകളുടെ ശേഖരംതന്നെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ കൗതുകത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം വിവിധ തരത്തിലുള്ള സ്റ്റാമ്പുകള് ശേഖരിക്കുന്നതിനും നാണയങ്ങൾ സ്റ്റാമ്പുകളും നാണയങ്ങളും ശേഖരിച്ചുവയ്ക്കുന്നതിനു നമുക്ക് നല്ല രീതിയില്ത്തന്നെ ശേഖരിച്ചുവയ്ക്കാൻ നമുക്കു സാധിച്ചിട്ടുണ്ട്